ഞാന് ഫ്ലിപ്പ് കാര്ട്ടില് നിന്ന് വാങ്ങിയൊരു സണ് സ്ക്രീനാണ് ടെര്മാ വൈബിന്റെ ഞാന് പല തരത്തിലുള്ള സണ് സ്ക്രീനുകള് ഇതിനു മുന്നേ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് വളരെയധികം റിസള്ട്ട് തന്നൊരു പ്രോടക്റ്റ് ആണ് ഈ ടെര്മ ടെര്മാ വൈബിന്റെ സണ് സ്ക്രീം അത് ഞാന് ഫ്ലിപ്പ് കാര്ട്ടില് നിന്നാണ് ഓര്ഡറാക്കിയത് ഇപ്പോളൊരു രണ്ടു വര്ഷമായി ഞാന് സ്ഥിരമായിട്ട് അതു തന്നാണ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ നല്ല റിസള്ട്ടാണ് അതില് നിന്നും സണ് സ്ക്രീം എന്നുള്ള രീതിയിൽ അധികം വൈഡ് കാസ്റ്റ് ഒന്നും ഇല്ലാത്ത നല്ലൊരു സണ് സ്ക്രീനാണ് അത് നമ്മുടെ ചര്മ്മത്തിന് വളരെ അനുയോജ്യമായതും സ്കിനില് നല്ല യോജിച്ചതുമായിട്ടുള്ള ഒരു രീതിയിലാണ് ആ സണ് സ്ക്രീം എനിക്ക് പോകുന്നത് രണ്ടു വര്ഷമായി ഞാന് സ്ഥിരമായി ഇത് ഉപയോഗിച്ചു കൊണ്ട് ഇരിക്കാണ് എനിക്ക് വളരെ നല്ല റിസള്ട്ടാണ് ഇതില് നിന്നും കിട്ടിയേക്കുന്നത് ഇതിനു മുന്നേ ഞാന് പല സണ് സ്ക്രീനുകളും പല കമ്പനിയുടേതും ഞാന് ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും എന്റെ ചര്മ്മത്തിന് യോജിച്ച തരത്തിലുള്ളവയല്ലായിരുന്നു പക്ഷേ ഇത് ഇതിനുശേഷം ഞാന് പിന്നെ മറ്റൊരു ബ്രാണ്ടും ഉപയോഗിച്ചു നോക്കിയിട്ടില്ല കാരണം ഇത് അത്രക്കും നല്ലൊരു പ്രോഡക്റ്റ് ആയിരുന്നു

ഒരു ദിവസത്തെ രാവിലെ ഇട്ട് രാവിലെ ഉപയോഗിച്ചു കഴിഞ്ഞാല് അത് വൈകുന്നേരം വരെ നമ്മുടെ സ്കിന്നില് കാണുകയും അത് സൂര്യ പ്രകാശത്തില് നിന്നും ഈ സണ് സ്ക്രീൻ നല്ലൊരു പ്രൊട്ടെക്ഷന് തരുന്നതായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട് അതു അതു തന്നാണ് ഇതിന്റെ ഒരു പ്രധാന പ്ലസ് പോയിന്റ് പിന്നെ വൈഡ് കാസ്റ്റ് വളരെ കുറവാണ് ഇട്ടതായിട്ടേ തോന്നത്തില്ല നമ്മുടെ സ്കിന്നിന്റെ അതെ ടോണില് തന്നെയാണ് ഇത് കാണുന്നത് അതുകൊണ്ടു തന്നെ ഇതൊരു വളരെ നല്ല പ്രോടക്റ്റ് ആയിട്ടാണ് ഞാന് കാണുന്നത് ഇത് ഞാന് എന്റെ കൂട്ടുകാര്ക്കും റെക്കമൻറ്റ് ചെയിതിട്ടുണ്ട് അവരെല്ലാം തന്നെ ഇതിനെക്കുറിച്ച് നല്ലൊരു അഭിപ്രായവാണ് പറഞ്ഞേക്കുന്നത് ഇന്നത്തെ കാലത്ത് സണ് സ്ക്രീനിന്റെ ആവശ്യം വളരെ അത്യാവശ്യമാണ് ഇന്നത്തെ യു വി റേഡിയേഷനില് നിന്നുള്ളൊരു പ്രൊട്ടക്ഷനും എല്ലാം ഇത് വളരെ നന്നായിട്ട് ഗുണം ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്റെ ഫ്രണ്ട്സും നല്ല അഭിപ്രായമാണ് ഇതിനേക്കുറിച്ച് പറഞ്ഞേക്കുന്നത്